ആരോഗ്യ സംരക്ഷണത്തിൽ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഭാരതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പല മാർഗ്ഗങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്

പല പകർച്ചവ്യാധികളെ പലതും പലതിനും ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഭാരതത്തിൽ ഉണ്ട് അത് ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായിട്ട് ഒരു അവേർനെസ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയം നേടാനും കഴിഞ്ഞിട്ടുണ്ട് സിറ്റിയിലുള്ള ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് വാക്സിനേഷൻ പ്രിവൻ്റീവ് മെഡിസിൻസൊക്കെ എടുക്കുന്നതിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാലും സർക്കാരിന് നല്ല വെല്ലുവിളികൾ നേരിടുന്നത് ഉൾനാടൻ ഗ്രാമ പ്രദേശങ്ങളിലുള്ള ജനങ്ങളിൽ നിന്നാണ് അവർ വിദ്യാഭ്യാസ കുറവുകൊണ്ടായിരിക്കാം പഴഞ്ചൻ ആചാര രീതികളും അനുഷ്ഠാനങ്ങളിലും പച്ചമരുന്നിലും ഒക്കെ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നും ഉണ്ട് അവരുടെ ഇടയിൽ പകർച്ചവ്യാധികൾ വളരെ വേഗം പകർന്നു പിടിക്കുകയും ഒരുപാട് ശിശു മരണങ്ങളും ഒക്കെ സംഭവിക്കുകയും ചെയ്യുന്നത് ഗ്രാമപ്രേദേശത്തിലുള്ള ജനങ്ങളിലാണ് എത്രമാത്രം സർക്കാരും മുന്നിട്ട് ഇറങ്ങി അവരുടെ ഇടയിലേക്ക് ആൾക്കാരെ വിട്ട് അവർക്ക് അവേർനസ് കൊടുത്താലും അവരത് ഉൾക്കൊള്ളുന്നില്ല ദോഷമാണെന്നൊക്കെ കരുതി അതിൽ നിന്ന് പിന്തിരിയുന്നത് സർക്കാരിന് കനത്ത ഒരു അടി തന്നെയാണ് പിന്നേ ശിശുക്കൾക്ക് വരെ ജനിക്കുമ്പോൾ മുതൽ അവർക്ക് പ്രിവൻ്റീവ് മെഡിസിൻസ് മംസ് മീസിൽസ് റൂബല്ല ഒക്കെ വരാതിരിക്കാൻ ഉള്ള മെഡിസിൻസ് ടി ബി വരാതിരിക്കാൻ ഉള്ള മെഡിസിൻസ് ഒരു പത്തു വയസ്സുവരെ അവർക്ക് പലതരത്തിലുള്ള പ്രിവൻ്റീവ് മെഡിസിൻ കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അങ്ങനെ ഒരു വിഭാഗം ജനത സർക്കാരിനെ വിശ്വസിച്ച് ഈ മരുന്നുകളെ വിശ്വസിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു വിഭാഗം ജനത പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുകയാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പ്രിവൻ്റീവ് മെഡിസിൻ കൊടുക്കാൻ താല്പര്യം ഇല്ല അങ്ങനെയൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ വ്യക്തി ശുചിത്വമില്ല പരിസരസംരക്ഷണം ഇല്ല പിന്നെ ജലസ്രോതസ്സുകളെ ഒക്കെ മലിനപ്പെടുത്തുക ഇറച്ചി മാലിന്യങ്ങളൊക്ക കൊണ്ട് ജലസ്രോതസ്സിൽ തള്ളുക ചത്ത ആടുമാടുകളെ തള്ളുക വാഹനങ്ങൾ കഴുകുക ഈ ഈ ജലത്തെ ആയിരിക്കും മനുഷ്യർ അവരുടെ ദൈന്യം ദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ രോഗങ്ങൾ പകരാൻ വളരെ വേഗം ഒരു കാരണമായി തീരുകയാണ് ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ജനങ്ങളെ ഉദ്ബോധനം നടത്തിയിട്ടും മനസ്സിലാവാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഭാരതത്തിലുള്ളത് ഒരു പ്രധാന കോട്ടം തന്നെയാണ് അവരെ കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഉള്ള മീറ്റിങ്ങുകൾ ആവേർനെസ് ക്യാമ്പുകൾ ഒക്കെ സംഘടിപ്പിച്ച് ആ അവരെ അതിൻ്റെ നല്ല വശങ്ങളും കൂടി നടത്തി ബോധവൽകരിച്ച് എടുക്കുമ്പോൾ ബോധവൽക്കരിച്ച് എടുത്താൽ മിക്കവാറും ഭാരതത്തിലെ ഇത് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ സക്സസ് ആവും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം